ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി പത്ത് പതിനാല് അഞ്ച് രണ്ടായിരത്തി എട്ട് പതിനെട്ട് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പതിനഞ്ച് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ്